എനിക്ക് പശു വളർത്തൽനോടാണ് സാധാരണ ഇഷ്ടം പക്ഷേ അതിന് നല്ല ഉണക്ക പുല്ലല്ല പച്ച പുല്ലാണ് കൊടുക്കുന്നത് പിന്നെ നല്ലപോലെ ആ അതിനെ പരിപാലിച്ചെടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം ആണ് ആ നല്ല ഭക്ഷണം കൊടുക്കുമ്പോൾ അത് നല്ല രീതിയിൽ കഴിക്കേം വേസ്റ്റാക്കാതെ ഇരിക്കേം ചെയ്യും പച്ച പുല്ല് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയാണ് ഞാൻ കൊടുക്കാറ് ഉണക്ക പുല്ല് എന്ന് പറയുന്നത് കച്ചിയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് കച്ചി വെച്ച് ഇട്ട് കൊടുക്കാറുണ്ട് എങ്കിലും പച്ച പുല്ല് എവിടെ കണ്ടാലും ഞാൻ പറിച്ച് കഴുകി വൃത്തിയാക്കി അതിന് കൊടുക്കാറുണ്ട് ആ അതാണ് ആരോഗ്യകരമായ ഭക്ഷണം മൃഗം പശു പശൂന് നല്ലത് പശു പച്ച പുല്ല് കണ്ടാൽ അത് നല്ലപോലെ കഴിക്കേം നല്ല രീതിയിൽ ഫുഡ് കിട്ടുകയും ചെയ്യും അതിനാൽ അതിന് നല്ല നല്ല തീറ്റയും അതുമൊക്കെ ഇതിനോടൊപ്പം ഞാൻ കൊടുക്കാറുണ്ട്